തിരുവിതാങ്കൂറിൽ ആദ്യ കാലങ്ങളിൽ അവർണ്ണർക്ക് ക്ഷേത്രങ്ങളിലൊന്നും പ്രവേശിയ്ക്കാനുള്ള ആ ഒരു സ്വാതന്ത്ര്യമില്ലായിരുന്നു ഐത്തം നില നിന്നിരുന്ന സമയമായിരുന്നു അപ്പോൾ അത്കൊണ്ട് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളും സമരങ്ങളും എല്ലാം നടത്തി അതിൻ്റെ ഭാഗമായിട്ട് ശ്രീചിത്തിര തിരുനാൾ മഹാരാജാവ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിൽ ക്ഷേത്ര പ്രവേശന വിളമ്പരം നമ്മുടെ തിരുവിതാങ്കൂറിൽ നടപ്പിലാക്കി കാരണം കൊം പുറകിലുള്ള ജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശിയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമായിരുന്നു അദ്ദേഹം ന നടപ്പിലാക്കിയത് അപ്പോൾ അതിൻ പ്രകാരം എല്ലാ ജാതിക്കാർക്കും ക്ഷേത്രങ്ങൾ പ്രവേശിയ്ക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു ഈ ഒരു പിന്നെ പോരാട്ടത്തെക്കുറിച്ച് മാത്രമേ എനിക്ക് അറിയാവു വ്യക്തിപരമായി അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഇന്ന് അമ്പലങ്ങളിൽ കയറാൻ കഴിയുന്നുണ്ട് ഇതിനേക്കുറിച്ച് മാത്രമേ എനിക്ക് പിന്നെ സാമുദായിക പോരാട്ടങ്ങളെക്കുറിച്ച് ഈ ഒരു കാര്യം മാത്രമേ അറിയാവൂ